വിഷു സമയത്ത് പിന്നെ പലതരം കലാരൂപങ്ങൾ പിന്നാ കോൽക്കളി അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ടാവും പിന്നേ കോൽക്കളി കഥകളി പിന്നെ അതൊക്കെയാണ് പിന്നെ വയനാട്ടിലെ പ്രധാന ഇത് പിന്നെ ആദിവാസികളാണ് ഈ തുടികൊട്ടുന്നതും മറ്റേ അവരെ കല്ല്യാണ ഇതിലെല്ലാം അവർ ഇങ്ങനെ തുടിയൊക്കെ കൊട്ടിയിട്ടാണ് അവർ കുറേ വിറകെല്ലാം വച്ച് ചുറ്റിലും നിന്ന് തുടിയെല്ലാം കൊട്ടി ഒരു തരം കളികളൊക്കെയുണ്ട് അതൊക്കെ ആദിവാസികളാണ് കളിക്കുന്നത് അത് വായനാട്ടിൽ തന്നെയാണ് ഏകദേശം ഉള്ളത് വയനാട്ടിലെ ആൾക്കാർക്കാണ് ആദിവാസികൾക്കാണ് അതിനെപ്പറ്റി അറിയുള്ളു അവരാണ് കോൽക്കളി അല്ല ഇത് തുടികൊട്ടി കളിക്കുന്നതും കല്ല്യാണ കാര്യങ്ങൾക്കൊക്കെ തുടിയാണ് അവർ പ്രത്യേകതയായിട്ട് കൊട്ടുന്നത് തണുപ്പ് കാലത്തും അവരിങ്ങനെ തുടി കൊട്ടിയിട്ടാണ് തണുപ്പൊക്കെ മാറ്റി ചുറ്റിലും നിന്ന് തുള്ളി കള്ളുംകുടിച്ച് തുള്ളി അങ്ങനെയൊക്കെയാണ് അവർ എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവിടെ വയനാട്ടിൽ അവരുടെ പ്രത്യകത തന്നെ ഈ പിന്നെ തുടി കൊട്ടിയിട്ടുള്ള കളിയാണ് കഥകളിയുമൊക്കെ ഇവിടെയുള്ളതാണ് കോൽക്കളി കഥകളിയൊക്കെ ഇവിടെത്തന്നെ വായനാട്ടിലുള്ള കളികളാണ്